ഹലോ അതെ പറഞ്ഞോളൂ ഒരു പവൻറെ മാല ഓക്കേ വലിയ ആൾക്കാർക്കാണോ അതോ കുഞ്ഞുങ്ങൾക്കാണോ ഓ അതായത് ഇരുപത്തെട്ടുകെട്ടിനുവേണ്ടിയിട്ടാണോ ആ ഓക്കെ എങ്ങനത്തെ മോഡലാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് മെഷീൻ കട്ടിങ് ആണോ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഷീൻ കട്ടെടുക്കുന്നതാണ് നല്ലത് കാരണമെന്നുവെച്ചാൽ ഇപ്പം അല്ലാത്ത നോർമൽ മോഡൽ മാലകളാണെങ്കിൽ കുഞ്ഞിൻറെ ശരീരത്തു കൊള്ളുകയും അതു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാല മാത്രം മതിയോ മാലയുടെ കൂടെ ഒരു ലോക്കറ്റും കൂടെ വേണം രണ്ടിന്റേം കൂടെ തൂക്കം എത്രവേണം മാലയും ലോക്കറ്റും ചേർത്ത് എട്ടുഗ്രാമിൽ വേണം അതെ വേറെയെന്തെങ്കിലും വേണോ വളയോ തളയോ കുഞ്ഞിന് ഇത് മാത്രം മതി അപ്പം ഞാനൊരു ഞാനൊരു മൂന്നാല് മോഡൽ എടുത്തിവിടെ വയ്ക്കാം ആ നിങ്ങളെപ്പോഴാണ് വരുന്നത് അഞ്ചുമണിക്കാണോ ആ അപ്പം ഞാനൊരു രണ്ടുമൂന്നു മോഡലെടുത്തിവിടെവയ്ക്കാം നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കിഷ്ടപ്പെടുന്നത് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾ വരുമ്പോൾ എന്നെയൊന്നു കോൺടാക്ട് ചെയ്താൽ മതിയേ ആ ഓക്കേ ശരിയെന്നാൽ